ആ സഞ്ചുവല്ലേ എടാ ഞാൻ നിന്നെ വിളിക്കാൻ കാരണം എനിക്ക് കുറച്ച് ഡൗട്സ് ഉണ്ടടാ ആ നമ്മൾ മറ്റേ പ പാലക്കാടുള്ള ഒരു പരിപാടിക്ക് ചേർന്നിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് ഒരു ഡൗട്സ് ഉണ്ട് നീ കഴിഞ്ഞ വട്ടം പോയതല്ലേ ആ അതു തന്നെ കർണാട്ടിക്ക് മ്യൂസിക്കിൻ്റെ നമ്മുടെ ചെമ്പൈ വൈദ്യ നാഥ് വൈദ്യ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ ദാസേട്ടനൊക്കെ വന്നില്ലേ ആ കഴിഞ്ഞ വട്ടം നീ പോയില്ലേ അപ്പം നിന്റെ അടുത്ത് ഒരു ഡൗട്ട്സ് എന്നാ നമ്മൾ ഈ കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ആൾക്കാര് പോണുണ്ടേ ആ ആ ആ ആ ആ

ആ ആ അതാണ് ഡൗട്ടെന്നെ ഞാനീ പരുപാടി ഇതുവരെ അങ്ങനെ അറിഞ്ഞിട്ടുല്ല എനിക്കറി അദ്യമായിട്ടാണ് പോണത് അപ്പ അതിൻ്റെ കുറേ ഇതുണ്ടാരുന്നേ പിന്നെ കർണാട്ടിക്ക് സംഗീതമാണ് ഇതിൽ മെയിനല്ലേ അതെ അതെ ആ ശരി ശരി ആ ആ ആ അതാണ് പ്രശ്നം ഈ കർണാട്ടിക്ക് മ്യൂസിക്കിന് ടച്ച് വിട്ടിട്ട് കുറച്ച് കാലമായി അപ്പൊ അതൊന്ന് പൊടി തട്ടിയെടുക്കണം അതാ അതാ നിന്നെ വിളിച്ചേ അപ്പം നമ്മൾ ഇത് ഇപ്പം നിനക്ക് സമയില്ലല്ലോ നിനക്കിപ്പോൾ എങ്ങടോ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നേ അപ്പൊ ഇതിനെ കുറിച്ച് കർണാട്ടിക്ക് മ്യൂസിക്കിൻ്റെ കുറച്ച് പാഠങ്ങളൊക്കെ എടുത്ത് തൻ്റെ വീട്ടിലേക്കൊന്ന് വരണമെന്നൊക്കെ ഇരിക്കിണ്ടയായിരുന്നു പരിപാടി എന്തായാലും രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അപ്പോ നെക്സ്റ്റ് ആ ആപ്പ ആ അപ്പ നീ വാ നമുക്ക് ഒരുമിച്ച് പോകാം ആ എന്തായാലും നെക്സ്റ്റ് വീക്ക് ഞാൻ വരാം പരിപാടി രണ്ട് മാസാ നീ ഫ്രീയല്ലേ ആ നെക്സ് ആ ഈ രണ്ട് മ നെക്സ്റ്റ് മന്താ സംഭവം നെക്സ്റ്റ് മന്ത് പകുതിയായിട്ടാണ് അപ്പോ ഞാൻ വിളിക്കാം പിന്നെ ആ ആ ആ പറയൂ ആണല്ലേ ആ അത് കഴിഞ്ഞ വട്ടവും കഴിഞ്ഞ വട്ടവും ഒപ്പം ഒപ്പം ഉണ്ടായിരുന്നതാ നമ്മുടെയൊപ്പം ആ ആ ആള് ആള് ആളെയൊന്ന് കാണണം കർണാട്ടിക്ക് മ്യൂസിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആളെ ഒന്ന് കാണണം എനിക്ക് ആണോ ഒ ഒന്ന് ആണോ ഒന്നുകൂടി കാണാം ഓക്കെടാ ശരി